ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി ഞാൻ യോഗ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന കോഴ്സ് ആയുർവേദമാണ് ബി എ എം എസ് എന്നാണ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറയുന്ന കോഴ്സ് ആണ് അതൊരു നാ അഞ്ചര വർഷത്തെ കോഴ്സ് ആണ് അതിൽ മൂന്നാമത്തെ വർഷം ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് ആ സ്വസ്ഥവൃത്തിലെ ഒരു ബ്രാഞ്ച് ആണ് സ്വസ്ഥവൃത്ത് ആൻഡ് യോഗ എന്നാണ് ആ കോ ആ സബ്ജക്റ്റിൻ്റെ പേര് അതിൽ യോഗ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ ഭാഗമായിട്ട് യോഗ പഠിക്കേണ്ടതുണ്ട് അപ്പം യോഗ അങ്ങനെയാണ് യോഗ പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെ പഠിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പി ജി ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പി ജി ചേച്ചിമാർ ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് യോഗ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ യോഗയോടുള്ള ഇൻട്രസ്റ്റ് കൂടുകയും അങ്ങനെ യോഗ കുറച്ച് കാലമായിട്ടൊരു ഒന്നര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും യോഗ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് യോഗ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്